മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒക്കെ മലയാള ഭാഷയ്ക്ക് മതിയായ പ്രാധിനിത്യം ഉണ്ടെന്ന് കരുതുന്നുണ്ട് കാരണം നമ്മളിൽ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ പത്രം ടി വി അതായത് ടി വിയിലെ ന്യൂസ് അങ്ങനെയുള്ള അതായത് റേഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മലയാള ഭാഷയുടെ അത് വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ എല്ലാം വാർത്തയൊക്കെ അറിയുന്നത് നമ്മൾ കൂടുതലും ടി വിയിൽ നിന്നൊക്കെയാണ് പിന്നെ അതേപോലെ അതൊക്കെ നമ്മൾ കേൾക്കുന്നത് മലയാളത്തിലാണ് ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് വേറെ മറ്റു ഭാഷകൾ ഒന്നും അറിഞ്ഞുവെന്ന് വരില്ല അപ്പം നമുക്ക് അതായത് അറിവുണ്ടാകുന്നതൊക്കെ അറിവ് അതായത് നമ്മളിൽ അറിവ് ഉൾക്കൊള്ളിക്കുന്നതൊക്കെ മലയാളഭാഷ തന്നെയാണ് അപ്പം അതുപോലെ ഇപ്പം പത്രത്തിലാണെങ്കിലും റേഡിയോയിൽ ഒക്കെ ആണെങ്കിലും പത്രത്തിൽ ആണെങ്കിൽ ഇപ്പം നമ്മൾ മലയാളം വായിക്കാൻ അറിയുന്നവർക്ക് മലയാളം അതായത് ന്യൂസും എന്തൊക്കെ ന്യൂസ് ആണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ റേഡിയോയിൽ ആണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെയാണ് മലയാളത്തിലാണ് നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമുക്ക് പല അറിവുകളും നമുക്ക് അതിൽ നിന്ന് കിട്ടും ന്യൂസ് മാത്രമല്ല പല അറിവുകളും അതായത് പാട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെത്തന്നെ എല്ലാം മലയാള ഭാഷയിൽ തന്നെയാണ് നമ്മൾ ഏകദേശം എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മലയാള ഭാഷയ്ക്ക് മതിയായ പ്രാതിനിധ്യം എങ്ങനെയാണെങ്കിലു ഉണ്ട്